വിദ്യാഭ്യാസ സംവിധാനത്തിനെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം തന്നെയാണ് ബികോസ് നമ്മുടെ ചെറിയ തോതിലുള്ള കഴിവുകളെയും എല്ലാം വാർത്തെടുക്കുന്ന ഒരു സ്ഥാപനമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നു പറയുമ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ അവിടെ അവിടെനിന്ന് പഠിക്കുന്നതെന്നൊ നമ്മുടെ സെക്കന്റ് ഹോമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെനിന്ന് പഠിക്കുന്നതാണ് നമ്മൾ വളർത്തിക്കൊണ്ടു വരുന്നത് പിന്നെ ഗ്രാമീണ പ്രദേശങ്ങൾ എന്നു പറയുമ്പോൾ ലാപ്ടോപ്സ് ആണെങ്കിലും അവർക്ക് ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി അനുസരിച്ച് അവരുടെ സ്കൂളിൽ ടീച്ചേഴ്സിനെ ആണെങ്കിലും അവരുടെ സംവിധാനങ്ങളൊക്കെ മാറ്റിമറിക്കണം എന്നാണ് അവർക്ക് ഇപ്പോൾ ഇപ്പോൾ നല്ല ടീച്ചേർസിനെ വയ്ക്കുക അതേപോലെത്തന്നെ അവർക്ക് എല്ലാം കൊണ്ടും ഉള്ള ഇപ്പോൾ സർക്കാർ സ്കൂൾ ആണെങ്കിലും നല്ല ഫുഡ്ഡ് പ്രൊവൈഡ് ചെയ്യുക അങ്ങനെ എല്ലാ കാര്യങ്ങളും നന്നായി പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ടീച്ചേർസ് ഒരു വടി എടുത്തു വന്ന് അടിക്കുന്നതിലുപരി അവർക്ക് നന്നായി കൂടെയിരുന്ന് മനസ്സിലാക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങളിൽ ആ പുസ്തകത്തിലുള്ള കാര്യങ്ങളിലുപരി അവർക്ക് ആ പുസ്തകത്തിൽനിന്ന് ഗ്രഹിക്കാൻ പറ്റുന്നതിലുപരി പുറത്തുള്ള ലോകത്തെപ്പറ്റി പറഞ്ഞ് കൊടുക്കാനാണെങ്കിലും പറ്റുന്ന ടീച്ചേർസായിരിക്കണം ഗ്രാമീണ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നതും ഇപ്പോൾ ഗ്രാമീണ പ്രദേശങ്ങളിലെ കുട്ടികളാണ് ഏറ്റവും പുറകോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ട വിധത്തിലുള്ള ടീച്ചേഴ്സിനെയും കാര്യങ്ങളും ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ് എന്നു പറയുമ്പോൾ അവർക്ക് നല്ല ടീച്ചേഴ്സിനെ കൊടുക്കുകയും നന്നായി പഠിപ്പിക്കാവുന്നതും അവർക്ക് പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നാണ് അവർക്ക് അവർക്കുവേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നു പറയാൻ പറ്റുന്നത്